ആ പറയു

ആ അത് ശരി ഓഹ് അതുശരി ആ ആ അതുശരി എ സി ഓണാക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ടോ തണുപ്പില്ല അതല്ലേ അതുശരി ആ ഒരു ഞാൻ ഒരു എന്ന് ആ ആ അതുശരി നിങ്ങളുടെ നിങ്ങളുടെ ഏരിയ ഈ കടലിൻ്റെ സൈഡാണോ കടലിൻ്റെ സൈഡാണോ ഈ ഇത് നിങ്ങളുടെ ഇപ്പോൾ ഈ ആ അതുശരി അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ ഫോൾട്ട് വരാനെ വഴിയുള്ളു ഇപ്പം ഞാൻ ഇത്തിരി തിരക്കിലാണ് അതിനിപ്പോൾ പലയിടത്തും വർക്ക് നടക്കുന്നതുകൊണ്ട് പണ്ടത്തെപ്പോലെയല്ല ഇപ്പോഴത്തെ വര്ക്കേഴ്സിനെ നിങ്ങൾക്കറിയാമല്ലോ സമയത്തിനൊന്നും എത്തത്തില്ല അപ്പോൾ വർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ് ഉണ്ടായാലും വർക്കേഴ്സ് സഹകരിക്കണ്ടെ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ബംഗാളികൾ അങ്ങനെ രാവിലെ വന്ന് ഒരു സലത്ത് വർക്ക് ചെയ്യും അടുത്ത സ്ഥലത്ത് അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും പോയിട്ട് വർക്ക് ചെയ്യും നമുക്കങ്ങനെ നമ്മുടെ വർക്കേഴ്സിന് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്

അല്ലെങ്കിൽ ഞാനിപ്പം ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് എറണാകുളം വരെ നമുക്ക് വർക്കേഴ്സ് ഉണ്ട് അപ്പം വർക്കിന് പലയിടത്തേയ്ക്കും വരണം അപ്പം ഓരോ സ്ഥലത്തും ഓരോ സമയത്താണ് വരുന്നത് അപ്പം അവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ അവർ വന്നാലെ എനിക്ക് വിടാൻ പറ്റത്തുള്ളു അപ്പം അതിന് സമയമെടുക്കും അത് നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്താലേ പറ്റുള്ളു ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും വേറെ വിളിച്ച് ചെയ്യിക്കുക തന്നെ ചെയ്തോ അപ്പോൾ എന്നാൽ നിങ്ങളുടെ വാഡിന് ആ അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആ വാറൻ്റി ബാധിക്കും അപ്പം നിങ്ങൾ വെയ്റ്റ് ചെയ്താലെ പറ്റുകയുള്ളു ഓക്കേ ആ